ഇവിടെ അങ്ങനെ വൈദ്യുതിക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ല ടൗൺ ഏരിയയിലാണേൽ പിന്നെ രാത്രി ഇടയ്ക്ക് പവർ കട്ട് ഉണ്ടാവാറില്ലേ അപ്പോൾ ചില ടൈമിൽ ഫോണിലോ അല്ലേൽ ലാപ്പിലോ ചാർജില്ലാത്തപ്പം ചെറിയ പ്രശ്നം വരാറുണ്ട് പിന്നെ പവർ ബാങ്കോ ജെനറേറ്ററോ ഉണ്ടെങ്കിൽ കുഴപ്പം ഉണ്ടാവില്ല മഴക്കാലത്താണ് കൂടുതൽ പ്രശ്നം വരാറുള്ളത് ഒരു ദിവസം ഫുള്ള് പവർ കട്ടായിട്ട് കറണ്ടിണ്ടാവില്ല പിന്നെ വൈദ്യുതി ഇപ്പോൾ മിക്സി യൂസ് ചെയ്യണമെങ്കിൽ ഒക്കെ കറൻ്റ് വേണമല്ലോ ടി വി കാണാനും പിന്നെ അയൺ ബോക്സ് യൂസ് ചെയ്യാനും എല്ലാത്തിനും വൈദ്യുതി ആവശ്യമാണ് വൈദ്യുതി ഇല്ലാണ്ട് ജീവിക്കാൻ അസാധ്യമാണ് ഇപ്പോൾ വലിയ കുഴപ്പം ഒന്നും ഇല്ല മഴക്കാലത്താണ് കൂടുതൽ പ്രശ്നം വരാറുള്ളത്